എൻ്റെ നാട്ടിൽ തുടങ്ങാൻ പറ്റിയ ബിസിനസ്സുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ആദ്യത്തെ സൂപ്പർ മാർക്കറ്റ് രണ്ടാമത്തേത് സ്പെയർ പാർട്സ് മൂന്നാമത്തേത് വർക്ക് ഷോപ്പ് നാലാമത്തേത് വാട്ടർ ബിസിനസ്സ് അഞ്ചാമത്തേത് മരുന്ന് ഷോപ്പ് ഇതിനൊക്കെയുള്ള കാരണം എന്താന്നുവെച്ചാൽ ഇതൊന്നും ഞങ്ങളെ നാട്ടിലെ അങ്ങാടികളില് ഇല്ലാത്ത ഷോപ്പുകളാണ് പൊതുവെ അപ്പോൾ ഇതെല്ലാം നടത്തിയാൽ അത്യാവശ്യം വിജയകരമായിത്തന്നെ മുന്നോട്ട് പോവും ഇതിൽ ഞാനേതെടുക്കും എന്നു ചോദിച്ചാൽ സൂപ്പർ മാർക്കറ്റാണ് കാരണം സൂപ്പർ മാർക്കറ്റിൻ്റെ മന്തിലി ടേണോവർ ആൻറ്റ് ഇയർലി ടേണോവർ വളരെ വലുതാണ് ഇതെടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അത് കുറേ ആൾക്ക് കൂടി ചെയ്യാൻ പറ്റുന്ന ഒരു സംരംഭമാണ് അതിൽ നമുക്ക് എല്ലാ സാധനങ്ങളും ഉൾപ്പെടുത്തിയാൽ നാടിന് വളരെ ഉപകാരപ്രദവും എത്രയും വില കുറച്ചു കൊടുക്കാൻ പറ്റിയാൽ അത്ര ലാഭവും അത്രയും ആൾക്കാരുടെ സഹകരണവും നമുക്ക് കിട്ടുന്നതാണ് ഇതിൽ സൂപ്പർ മാർക്കറ്റ് തുടങ്ങാൻ ആവശ്യമായതൊരു പ്രത്യേക സ്ഥലമാണ് ആ സ്ഥലം ഞങ്ങളെ വീടിനടുത്തു തന്നെ ഉണ്ടാവും അല്ലെങ്കിൽ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങേണ്ടതാണ് ഏതെങ്കിലും ഒരു അങ്ങാടിയുടെ നടുവിലാണേൽ ഏറ്റവും അത്രയും നല്ലത് സൂപ്പർമാർക്കറ്റീന്നത് തുടങ്ങുമ്പോൾ നമ്മൾ ഏറ്റവും നല്ലതൊരു വലിയ ഫണ്ട് തന്നെ ആവശ്യമാണ് അതിന് നമ്മൾ കുറച്ച് ആൾക്കാർ ഷെയറിട്ടോ അല്ലേൽ സ്റ്റാർട്ടപ്പിന് അത്രയും പൈസ ഉണ്ടെങ്കിൽ അതുപയോഗിക്കുന്നതാവും ഏറ്റവും നന്നാവുക സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ അതിലെല്ലാം ആവശ്യമാണ് എല്ലാ സാധനവും ഉണ്ടെങ്കിൽ മാത്രമേ ആൾക്കാരുടെ തിരക്ക് കൂടുകയുള്ളൂ ആവശ്യക്കാരും കൂടുകയുള്ളൂ പിന്നെ സൂപ്പർ മാർക്കറ്റ് തുടങ്ങുമ്പോൾ ഒരു നല്ല പരസ്യവും അത്യാവശ്യമാണ് ഇല്ലെങ്കിൽ ആരും നമ്മൾ ഇതിനെപ്പറ്റി അറിയാതെ പോവുകയും ഇനാകുരേഷൻ്റെ അന്ന് നല്ലൊരു ആൾക്കാർ വന്നാൽ അത്രയും മികച്ചതാണ്